ആ ഹലോ ആഹ് അതെയല്ലോ സാർ ആഹ് ആഹ് പറഞ്ഞു ഏത് വണ്ടിയാണ് സാർ ഏതായിരുന്നു സാർ നമ്മളെല്ലാ ബ്രാൻഡ്സുമുണ്ട് ലക്ഷ്വറിയുണ്ട് പിന്നെ നോർമൽ കാർസുമുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് കാര്യം മെയിനായിട്ട് ഇപ്പം ബെൻസ് ഉണ്ട് ബി എം ഉണ്ട് അതുപോലെ നോർമൽ കാർസൊക്കെ വരികയാണെങ്കില് ഹുണ്ടായി ഉണ്ട് മഹീന്ദ്ര ഉണ്ട് പിന്നെ വോക്സ് വാഗൺ അങ്ങനത്തെ എല്ലാ ബ്രാൻഡ്സും ചെയ്യുന്നുണ്ട് ഇപ്പം ഹുണ്ടായിയൊക്കെ നോക്കുകയാണെങ്കില് നല്ല സാര് എന്താണ് നോർമൽ വണ്ടിയാണോ നോക്കുന്നത് ഹുണ്ടായ് അങ്ങനത്തെ ടൈപ്പാണോ നോക്കുന്നത് ഓ ഓടിച്ചുപഠിക്കാനാണോ സാർ നമ്മുടെ ഇപ്പം ബെസ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു എന്നുപറഞ്ഞാല് ഹുണ്ടായിയുടെ ഐ ട്വൻറ്റി അത് സിംഗിൾ ഓണര് വണ്ടിയാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടാണോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പതിമൂന്ന് രജിസ്ട്രേഡ് അത്യാവശ്യം ഡോക്ടർ യൂസ്ഡ് വണ്ടിയാണ് വലിയ കുഴപ്പമൊന്നുമില്ല നമ്മുടെ അണക്കരയുള്ള ഡോക്ടര് അണക്കരയുള്ളൊരു ഡോക്ടറിൻ്റെ കയ്യില് നിന്നെടുത്ത വണ്ടിയാണ് ആഹ് അവര് മറ്റേ ഒരു ലേഡി ഡോക്ടറാണ് മറ്റേ ഇവിടെ കാഞ്ഞിരപ്പള്ളിയിലെ തന്നെ നിങ്ങള്ക്ക് അറിയാമായിരിക്കും ആ ആ ആ ആ ജന ഡോക്ടറിൻ്റെ വണ്ടിയായിരുന്നു ഓ ഓ അപ്പം നമ്മളിനി ഇടയ്ക്കൊരു കച്ചവടക്കാരനായി പോകുമോ സാർ കാര്യം മാഡത്തിന് എന്തോ അബ്രോഡെങ്ങാണ്ട് പോകേണ്ട കേസ് വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് വണ്ടി സെയില് വന്നതുകൊണ്ട് ഞങ്ങളാണ് വണ്ടിയെടുത്തത് സാറിന് അറിയാമായിരിക്കുമല്ലോ പിന്നെ മാഡമായതുകൊണ്ട് പിന്നെ മുട്ടലും തട്ടലുമൊന്നുമില്ല വണ്ടിക്ക് നല്ല ഫ്രഷ് വണ്ടിയാണ് സാറിനായിട്ട് ആണോ സാര് നമുക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല കാര്യം നമ്മള് ഫുള് ചെക്ക് ചെയ്തതാണ് എന്നാല് അവര് വേറെ വണ്ടിയായിരിക്കും ഉദ്ദേശിച്ചത് ഈ വണ്ടിയുടെ കാര്യമല്ലായിരിക്കും ആ അത് ശരിയാണ് സാർ പിന്നെ ഈ വണ്ടി വലുതായിട്ട് ഓടിയിട്ടില്ല ആഹ് ജസ്റ്റ് ട്വൽവ് മോഡല് തേർട്ടീന് റെജിസ്റ്റേർഡ് ആ സാർ സ്പെക് വരികയാണെങ്കില് പവർ സ്റ്റിയറിങ് പവർ വിൻഡ് ബ്ലൂടൂത്ത് എല്ലാമുണ്ട് പിന്നെ എൻജിൻ വരുമ്പോഴത്തേക്ക് വൺ പോയിൻ്റ് ത്രീയിലാണ് വരുന്നത് പിന്നെന്താണ് അങ്ങനെയൊക്കെയുള്ള പിന്നെ അത്യാവശ്യം കംഫർട്ട് ഉണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ പെട്രോൾ വണ്ടിയാണ് വരുന്നത് മൈലേജൊക്കെ നോക്കുകയാണെങ്കില് ഒരു ഫോർട്ടി ടു സിസ്റ്റി എടാ അത് തൗസൻ്റ് സോറി സാര് എടായെന്ന് വിളിച്ചതിന് അത് വൺ പോയിൻ്റ് റ്റൂ പെട്രോള് പെട്രോള് പിന്നെ മാഡം അത്യാവശ്യം വർക്കൊക്കെ എടുത്തിട്ടുണ്ട് വണ്ടിയില് അത്യാവശ്യം നോർമലായിട്ടുള്ള അക്സസറീസും കാര്യങ്ങളും ഒക്കെ ആഹ് ആഹ് അതൊക്കെ അവര് ഇത് കളഞ്ഞായിരുന്നു കേട്ടോ അത് എനിക്ക് അത് എനിക്ക് തോന്നുന്നു മാഡം ഹസ്ബൻഡിന് മറ്റെ ഗിഫ്റ്റ് ബർത്ത്ഡേയുടെ മറ്റേ അവിടെ പുള്ളിയുടെ അല്ല ബർത്ഡേ അല്ലല്ലോ ആനിവേഴ്സറിയുടെ എന്തോ ഗിഫ്റ്റിങ് എന്തോ ചെയ്തത് അത് അവര് ഊരിയായിരുന്നു സ്റ്റോക്കായിട്ടാണ് വണ്ടി തരുന്നത് ഇപ്പം വണ്ടിയുടെ റേറ്റ് പറയുകയാണെങ്കില് മാഡം ആസ്ക്ക് ചെയ്യുന്ന റേറ്റ് എത്രയാണെന്ന് പറഞ്ഞാല് അഞ്ചേകാല് വരും സാര് ഓക്കേയാണോ ആ ആ ആ അല്ല സാർ വേറെ വണ്ടികളുണ്ട് പിന്നെ ഇത്രയും നീറ്റ് ഇത്രയും ഡീസല് വണ്ടിയുണ്ട് പിന്നെ ഞാൻ പറയാൻ കാരണം ഇതൊരു ഡോക്ടർ യൂസ്ഡ് വണ്ടിയൊക്കെയായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏഹ് ഐ ട്വൻറ്റി നമുക്ക് വേറെ വണ്ടി വരുന്നുണ്ട് അത് ഡീസല് വണ്ടിയാണ് അതൊക്കെ വൺ ലാഖിന് മുകളില് പക്ഷേ പക്ഷേ വൺ ലാഖിന് മുകളില് ഓടിയതാണ് സാറിന് ഇപ്പം ഓടിച്ച് പഠിക്കാനാണെങ്കില് ഈ വൺ ലാഖൊക്കെ ഓടിയ വണ്ടി എടുക്കുകയാണെങ്കില് കുഴപ്പമില്ല വൈഫിന് വൈഫിന് ആഹ് സാർ അതുപോലെ നമുക്ക് ബി എമ്മിൻ്റെ ഫൈവ് തേർട്ടി ഡി എം ടു ഒക്കെ വന്നുകിടപ്പുണ്ട് സാറിന് ഇതുണ്ടെങ്കില് നമുക്ക് സാര് എന്ത് ആക്ച്വലി എന്തു ചെയ്യുകയാണ് നീയും ഡോക്ടറാണോ അയ്യോ സാറും ഡോക്ടറാണോ അപ്പോള് നിങ്ങള് ഫാമിലിപരമായിട്ട് ഡോക്ടേഴ്സാണല്ലേ ഓ സാർ സാറിനിപ്പം സാറിന് എനിക്ക് തോന്നുന്നു ബെൻസിൻ്റെ മറ്റെ ജി എൽ എ അല്ലേ യൂസ് ചെയ്യുന്നത് ആഹ് എനിക്കറിയാം സാറിന് ഒരു അപ്ഗ്രേഡ് ആയിട്ട് ഒരു എം ടുവിലേക്കൊക്കെ നോക്കുന്നുവോ സാർ ഓ സാർ നമുക്ക് നോക്കുകയാണെങ്കില് ഒരു എം ടു ഒരു ഡിഫൻഡർ വന്ന് കിടപ്പുണ്ട് കേട്ടോ ലോ കിലോമീറ്ററാണ് അത് എത്രയാണ് സാര് ട്വൻറ്റി കെ അത് നമ്മുടെ ഇവിടെ മറ്റേ ഡോക്ടറുടെ ഒരു കസിൻ്റെ വണ്ടിയാണ് ആഹ് കസിൻ അല്ല എനിക്ക് തോന്നുന്നു അവര് ഡാഡിക്ക് ഗിഫ്റ്റ് കൊടുത്തതാണെന്ന് തോന്നുന്നു പുള്ളിയുടെ ബർത്ത്ഡേക്ക് പുള്ളി ഇവിടെ വന്ന് സെയിലാക്കി വണ്ടി പുള്ളിക്കാ വണ്ടി വേണ്ട അവര് അവര് ഫാമിലിയായിട്ട് ഇവിടെയാണ് സാർ വണ്ടി കൊടുക്കാറ് ഫുള്

ഇല്ലില്ല ഇല്ല വേറെ കുഴപ്പമില്ല സാര് ഒരു കാര്യം ചെയ്യൂ ഞാൻ കുറച്ചു തിരക്ക് എനിക്ക് കുറച്ച് കോളും മീറ്റിംഗ്സുമൊക്കെയുണ്ട് സാർ ഇവിടെ വന്ന് അന്വേഷിച്ചാല് മതി എങ്ങനെയായിരുന്നു ആഹ് പിന്നെ അതെല്ലാ സാറേ എല്ലാ സ്ഥലത്തുമുണ്ട് കാര്യം നമ്മളൊരു മാസം എൻജിൻ വാറൻറ്റിയെല്ലാം കൊടുക്കുന്നുണ്ട് ഫുൾ വാറൻറ്റി ആഹ് സാർ ഇപ്പോളൊരു ഓഫറുണ്ട് സാർ ഇപ്പോള് ഇവിടെനിന്ന് ഇപ്പം വണ്ടിയെടുക്കുകയാണെങ്കില് ഫുൾ ടാങ്ക് ഡീസൽ ഫ്രീ ഡീസലാണെങ്കില് ഡീസല് പെട്രോളാണെങ്കില് പെട്രോള് അങ്ങനെ സാർ ഞാൻ വിളിച്ചാല് മതിയോ എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു സാറിന് എന്തെങ്കിലും അറിയാനുണ്ടെങ്കില് നമ്മുടെ ഇതിലേക്ക് വിളിച്ചാല് മതി ആഹ് ശരിയെന്നാല്